ആ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മതകേന്ദ്രമാണ് ഗുരുവായൂർ ക്ഷേത്രം അവിടെയാണ് ശ്രീകൃഷ്ണന്റെ ഏറ്റവും തിരക്കുള്ള ഒരു ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ കല്ല്യാണങ്ങളൊക്കെ ചിലപ്പോൾ നൂറും നൂറ്റിയൻപതും വിവാഹങ്ങളാണ് നടക്കാറുള്ളത് ചോറൂട്ട് നൂലുകെട്ട് അങ്ങനെയുള്ള ഒത്തിരി ആചാരങ്ങൾ അവിടെച്ചെന്ന് ആളുകൾ നടത്താറുണ്ട് ഏറ്റവും പ്രസിദ്ധിയാർതിച്ചതും ഏറ്റവും പ്രസിദ്ധിയാർജ്ജിച്ച ശ്രീകൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം